ഹലോ ആ ഹലോ വയനാട് ഗൈഡാരുന്നു പറഞ്ഞോളൂ ആ ആ ആ ഓക്കെ ഏതൊക്കെ സ്ഥലങ്ങളാണ് കറങ്ങേണ്ടതെന്ന് എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞിരുന്നോ

ആ ഉണ്ട് ഉണ്ട് ഉണ്ട് ആ അതെ അവിടെയുണ്ട് അവിടെയുണ്ട് വേറെ സ്ഥലങ്ങളേതെങ്കിലും നിങ്ങളുടെ ഇതിലുണ്ടോ അതായത് നിങ്ങൾക്കിപ്പോൾ കറങ്ങാൻ പറ്റിയ ഏതെങ്കിലും സ്ഥലങ്ങളുടെ പേരറിയുമോ

ആ അതിൽ ഇപ്പോൾ ഉണ്ടാവില്ലയെന്ന് അത് കഴിഞ്ഞു ഇനി അടുത്ത ജനുവരി ആകണം അതുണ്ടാവണമെങ്കിൽ ഇപ്പോൾ അവിടെ നമ്മൾക്ക് ഗാർഡനൊക്കെ കാണാം അതിന് കുഴപ്പമൊന്നുമില്ല ഇന്ന് അല്ലെങ്കിൽ പിന്നെ അല്ലാണ്ടുള്ളതാണെങ്കിൽ ആ കാരാപ്പുഴ പോവാം കുഴപ്പമില്ല കാരാപ്പുഴയൊക്കെയുണ്ട് പിന്നെ കുറുമ്പലക്കോട്ടയുണ്ട് കുറുമ്പലക്കോട്ടയിൽ നമ്മൾ രാവിലെ വേണം പോവാൻ എന്നാൽ രാവിലെ വെളുപ്പിന് ആയാൽ അവിടുത്തൊരു എങ്ങനെ അവിടെ മെയിനായിട്ട് നമ്മൾ മലേൻ്റെ മുകളിലേക്ക് ട്രക്കിങ്ങ് ചെയ്തിട്ട് വേണം കയറാൻ അവിടെ കയറിക്കഴിഞ്ഞാൽ മേലെയുള്ളത്

ജീപ്പ് ജീപ്പ് നമ്മൾക്ക് ജീപ്പാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കാരണം ഈ വലിയ മലകളും കുന്നുകളൊക്കെ ആയതുകൊണ്ട് ജീപ്പാണ് പ്രൊവൈഡ് ചെയ്യുന്നത്

ആ അതായത് രാവിലെ നമ്മൾ കുറുമ്പലക്കോട്ടയ്ക്ക് പോവാം ഒരു മൂന്ന് ദിവസത്തെ ട്രിപ്പല്ലേ ആ ഇവിടെ ഈ കുറുമ്പലക്കോട്ടയിൽ രാവിലെ പോയാലാണ് അവിടുത്തെ വ്യൂ കാണാൻ പറ്റുള്ളൂ ഒരു അഞ്ചു മണി ആകുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അവിടെ കയറി കയിഞ്ഞാൽ അവിടുത്തെ വ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞിറങ്ങിയിട്ട് ഒരു എട്ടര ഒമ്പതു മണിക്കുള്ളിൽ നമ്മൾ അവിടെനിന്ന് എന്തായാലും അവിടെനിന്ന് പുറപ്പെടും അതു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പക്ഷി പാതാളം ഇല്ലേ നമ്മുടെ ഫിലിമില്ലേ അവിടെ വന്നിട്ട് അവിടെ നിന്ന് അവിടെ കയറും അവിടെ കയറിയിട്ട് എന്തായാലും ഇറങ്ങി വരുമ്പോഴത്തേയ്ക്കും ഒരു വൈകുന്നേരമൊക്കെ ആകും ഒരു ഉച്ച എന്തായാലും കഴിയും പിന്നെ വൈൽഡ് ലൈഫുണ്ട് പിന്നെ ബേഗൂർ വൈൽഡ് ലൈഫ് അതായത് കാട്ടിൽക്കൂടി നമ്മൾ ജീപ്പിൽ യാത്ര ചെയ്യുന്നത് അപ്പം അതും അതും ആ സമയത്തു തന്നെ നമ്മക്ക് ചെയ്യാം പിന്നെ അതു കഴിഞ്ഞാൽ പിറ്റേ ദിവസമാണ് സ്റ്റാർട്ട് ചെയ്യുക

ആക്കൊമഡേഷൻ നമ്മൾ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് കുഴപ്പമൊന്നുമില്ല എല്ലാ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ട് നമ്മുടെ തന്നെ ഉണ്ട് ഉണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അതു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾ നമ്മൾ കവറ് ചെയ്യും ഒരാൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് അതായത് ഇവിടെ കയറാൻ മാത്രം കേട്ടോ നമ്മുടെ വണ്ടീൻ്റെ ചാർജ്ജ് എക്സ്ട്രാ പേയ്മെൻ്റ് ചെയ്യണം പിന്നെ ഫുഡിൻ്റെ അക്കോമഡേഷൻ്റെ വേറെ ചാർജ്ജ് ചെയ്യണം അവിടുത്തെ അഡ്രസ്സ് ടോട്ടാലി എത്ര പേർക്കാണ് ഒരാൾക്കാണോ എത്ര പേരുണ്ട് മൂന്നാള് അല്ലേ ആ ഇപ്പോൾ ഒരു ഒരാൾക്ക് ആറായിരം രൂപേൻ്റെ അടുത്തു വരും ഓക്കെ ആ ആ അത്രേയുള്ളു അപ്പം മാം എന്നാണ് വരുന്നത്

ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഞാൻ വിളിക്കാം ഓക്കെ